ഞാൻ ലൈബ്രറി പോകാറില്ല തന്നെയല്ല ഞങ്ങൾക്ക് അടുത്ത് ലൈബ്രറിയില്ല പിന്നെ എനിക്ക് ഇത്രേം പ്രായമായത് കൊണ്ട് അങ്ങനെ ലൈബ്രറിയിൽ പോകുന്നില്ല പോകുകേല പിന്നെ പിള്ളേരോക്കെ പോകും പിന്നെ ഞാൻ കൂടുതലും പത്രവും അതുപോലെ നമ്മുടെ ക്രിസ് ക്രിസ്യമായ മാസികളൊക്കെയാണ് ഞാൻ വായിക്കാറ് പതിവ് എത്രയായി